ആ അതെ അതെ പാക്കേജ് ചെയ്യുന്നതാണ് ടൂറിസ്റ്റ് ഗൈഡും കൂടിയാണ് പറഞ്ഞുകൊള്ളൂ എറണാകുളത്തല്ലേ ഓക്കെ ഓക്കേ എങ്ങനെയാണ് വൺ ഡേ ട്രിപ്പാണോ കുറച്ച് ദിവസത്തെ സ്റ്റേയും കൂടി വേണം ഓക്കെ വയനാട് ഓൾ വയനാട് വിസിറ്റ് ചെയ്യാനാണോ അതോ നിങ്ങളേതെങ്കിലും ഡിസൈഡ് ചെയ്തിട്ടുണ്ടോ ഇന്നയിന്ന പ്ലേസെന്ന് മാത്രമായിട്ട് ഓൾ വയനാട് കറങ്ങാനാണ് ഓക്കെ

ഓക്കേ അതായത് നിങ്ങള്ക്ക് എങ്ങനെ കയ്യില് പൈസ കുറഞ്ഞിട്ടുള്ള ഇതാണോ നോക്കുന്നത് അതോ കുറച്ച് എമൌണ്ട് ആയാലും കുഴപ്പമില്ലായെന്നാണോ എങ്ങനെയാണ് കുറച്ച് എമൌണ്ടായാലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കില് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇപ്പോള് വൺ വീക്കാണെങ്കില് അങ്ങനെ ചെയ്യാം അല്ലെങ്കില് നമുക്ക് ഒരു ദിവസം ഇത്ര സ്ഥലം എന്നൊരു പ്ലേസ് വെച്ചിട്ട് കണക്കുകൂട്ടാം ഓക്കെ അങ്ങനെയെടുക്കാം അങ്ങനെയാണെങ്കില് നമുക്കൊരു ദിവസം ഒരു അഞ്ച് അഞ്ച് സ്പോട്ട് അങ്ങനെയൊരു ഫിക്സ് ചെയ്യാം അതായത് മോർണിംഗ് ഒരു സ്റ്റേ ഹലോ കേള്ക്കുന്നുണ്ടോ അതായത് മോർണിങ്ങില് തന്നെ രാവിലെ തന്നെ നമുക്കൊരു അതായത് ഒരു നമുക്ക് ഹിൽടോപ്പ് അങ്ങനെയുള്ള നല്ല വ്യൂപോയിൻറ്റായിട്ടുള്ള സ്ഥലത്ത് പോകാം സെക്കൻഡായിട്ട് ഒരു പതിനൊന്നു മണി ആ ഒരു ടൈമിനോടടുക്കുമ്പോള് ഏതെങ്കിലും പാർക്ക് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് മെയിനായിട്ട് എൻജോയ് ചെയ്യണമെങ്കില് നമുക്ക് കൂടുതലും ഈവെനിങ്ങും ആണ് മെയിനായിട്ട് വരിക ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം ഓക്കെ അങ്ങനെ ആ പറഞ്ഞുകൊള്ളൂ അതെല്ലാം അതില് ഇൻക്ലൂഡഡ് ആയിരിക്കും നമ്മള് പാക്കേജായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കില് വൺ വീക്കാണെങ്കില് വൺ വീക്കിനുള്ള മൊത്തത്തിലുള്ള ഒരു പാക്കേജായിരിക്കും ചെയ്യുക അത് ഫൂഡ് അടക്കമായിരിക്കും വരിക ഫുഡ് ഇൻക്ലൂഡഡായിരിക്കും സ്റ്റേയും കൂടി വേണം സ്റ്റേയും കൂടി വേണ്ടിവരുമോ എങ്ങനെയാണ് സ്റ്റേ വേണം സ്റ്റേ നിങ്ങളായിട്ട് നോക്കുകയാണെങ്കില് അങ്ങനെ നോക്കാവുന്നതാണ് സ്റ്റേയും കൂടി വേണമെങ്കില് അതിനനുസരിച്ചുള്ള പാക്കേജില് എമൗണ്ട് മാറ്റം വരുന്നതായിരിക്കും അതേ ഇരുപത് പേർക്ക് ഒരു ഗൈഡ് ആ ഒരു ഇതിലാകും വരിക

ഓക്കെ നിങ്ങള്ക്ക് മെയിനായിട്ട് എന്തെങ്കിലും സ്പോട്ട് ഫ്രണ്ട്സ് ഇരുപത് പേരുണ്ടെന്ന് പറഞ്ഞുവല്ലോ അപ്പോള് അവര് ഏതെങ്കിലും ഡിസൈഡ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കുക അങ്ങനെയാണെങ്കില് അതിൻ്റെ ലിസ്റ്റും കൂടി ഒന്ന് സെൻഡ് ചെയ്യുകയാണെങ്കില് ഞാന് അതിനനുസരിച്ച് പാക്കേജ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കില് എനിക്ക് ഏതൊക്കെ പ്ലേസെന്ന് നിങ്ങള് പോകാനുദ്ദേശിക്കുന്ന പ്ലേസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് മെയിനായിട്ട് നിങ്ങള്ക്ക് വൈൽഡ് ലൈഫായിട്ടുള്ള അങ്ങനെയല്ലേ വേണമെന്ന് പറഞ്ഞത് ഓക്കെ അതിനനുസരിച്ച് കണ്ടക്ട് ചെയ്തിട്ട് എന്തു ചെയ്യാം ഒരു പാക്കേജ് ഞാൻ ഫിക്സ്ഡായിട്ടുള്ള എമൗണ്ടും ഡിറ്റൈല്സും എല്ലാം ഫുഡ് അക്കോമഡേഷൻ എല്ലാ കാര്യവും കൂടി ഞാൻ നിങ്ങള്ക്ക് ഫോർവേഡ് ചെയ്യാം ഓക്കെ അങ്ങനെയാണെങ്കില് നിങ്ങള് ഈ നമ്പറൊന്ന് നോട്ട് ചെയ്താല് മതി ഓക്കെ ഈ നമ്പർ നോട്ട് ചെയ്തിട്ട് നിങ്ങളെന്ത് ചെയ്യുക എന്നെ ഒന്ന് മിസ് കോൾ അടിച്ചാല് മതി ഫിക്സ് ചെയ്തിട്ട് ഞാന് വേണമെങ്കില് ഡയറക്ട് കോണ്ടാക്ട് ചെയ്യാം ഇല്ലെങ്കില് നിങ്ങള് വാട്സാപ്പ് ചെയ്യുകയാണെങ്കില് വാട്സാപ്പ് ചെയ്താലും മതി ഓക്കെ ഓക്കെ അതിനുശേഷം ഞാന് വേണമെങ്കില് പാക്കേജ് ഡീറ്റെയിൽസെല്ലാം നിങ്ങള്ക്ക് ഫോർവേർഡ് ചെയ്തിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യൂ